സാങ്കേതിക വിദ്യയുടെയും ഇന്റര്നെറ്റിന്റെയും വളര്ച്ചയ്ക്ക് ഒപ്പം തന്നെ മലയാള ഭാഷയുടെ ഉപയോഗത്തില് പലീതിയിലുള്ള മാറ്റങ്ങള് ഉണ്ടായിട്ടുണ്ട്

നമുക്ക് വോയിസ് ഉപയോഗിച്ച് സേര്ച്ചിങ്ങിന് പറ്റും അതുപോലെ തന്നെ എന്താണ് ടൈപ്പിന് ടൈപ്പീയ്യുന്നതിന് തന്നെ ഇപ്പോള് ഇംഗ്ലീഷ് കീബോര്ഡിന് പകരം മലയാളം കീബോര്ഡും മംഗ്ലീഷ് കീബോര്ഡും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോള് അതിലൂടെ തന്നെ നമുക്ക് മലയാള ഭാഷയുടെ വളര്ച്ചയും ഇന്റര്നെറ്റിന്റെ ഇന്റര്നെറ്റില് മലയാള ഭാഷയുടെ വളര്ച്ച നല്ലരീതിയില് തന്നെ മനസിലാക്കാന് കഴിയും അപ്പോള് എന്തുവാ നമ്മള് ഭാഷയിലെ അപ്പോള് ഇംഗ്ലീഷ് ഭാഷയില് വലിയ പരിജ്ഞാനമില്ലാത്ത ആളാണെങ്കില് കൂടി തന്നെ നമുക്ക് വോയിസുപയോഗിച്ച് സേര്ച്ച് ചെയ്യുമ്പോള് നമുക്കറിയേണ്ട കാര്യങ്ങള് അറിയാന് സാധിക്കും